ശബ്ദത്തിൻ്റെ ക്ഷീണം നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷീണമാണല്ലോ അല്ലങ്കിൽ എന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും ശബ്ദത്തിൻ്റെ ക്ഷീണവും അലർച്ചയും വരുന്നത് തൊണ്ട വേദന അല്ലങ്കിൽ ചുമ അതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ടാവാം ഒരു പക്ഷേ ശബ്ദം മാറുന്നത് അതുകൊണ്ട് നമ്മൾ അതിൻ്റെ തന്നെ ആൻ്റി ബിയോട്ടിക്കോ അല്ലെങ്കിൽ അതിന് എന്താണോ കാരണം അതിനായിട്ടുള്ള മറു മരുന്ന് ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ എന്തൊക്കെ പൊടിക്കൈകളാണ് ശബ്ദത്തെ സംരക്ഷിക്കാൻ സ്വീകരിക്കുന്നതെന്ന് വച്ച് കഴിഞ്ഞാൽ ചൂട് വെള്ളം കുടിക്കുക അതുപോലെ ഉപ്പ് വെള്ളം കവുകൊള്ളുക തണുത്ത ഐസ്ക്രീമ് തണുത്ത വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൂടിക്കാതിരിക്കുക അപ്പോഴൊക്കെ തൊണ്ടവേദനയും തൊണ്ട കാറലും കൊണ്ട് തന്നെ ശബ്ദത്തിന് ഒരുപാട് തസ്സങ്ങളും ബുദ്ധിമുട്ടുവൊക്കെ വരാറുണ്ട് പിന്നെ ഒരുപാട് ഒച്ചയിൽ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് പാട്ട് പാടുമ്പോഴോ ഒക്കെ തന്നെയും തൊണ്ടയിൽ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പം അതൊക്കെ കുറയ്ക്കാറുണ്ട് പിന്നെ ഒരുപാട് ഒരുപാട് തണുത്ത ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുമ്പോഴും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോഴൊക്കെ തന്നെ തൊണ്ടയിലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ ശബ്ദത്തിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശബ്ദം ഉണ്ടങ്കിലേ മറ്റുള്ളവരോട് സംസാരിക്കാൻ എക്സ്പ്ലൈൻ ചെയ്യാനും കാര്യങ്ങളാണ് മനസ്സിലാക്കാനും മനസ്സിലാക്കി കൊടുക്കാനും സാധിക്കുകയുള്ളു അല്ലെങ്കിൽ എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിക്കാനോ അല്ലങ്കി ദേഷ്യം വന്നാൽ പറയാനുമൊക്കെ ചെയ്യുള്ളു അതുകൊണ്ട് തന്നെ എപ്പോഴും ശബ്ദമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം അതുകൊണ്ട് തന്നെ ശബ്ദത്തെ എപ്പോഴും ഏത് തരത്തിലാണങ്കിലും അത് പ്രശ്നമില്ലാതെ മുന്നോട്ട് കൊണ്ട് പോകാനാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് തന്നെ ചൂട് വെള്ളം കുടിച്ചും അതുപോലെ എന്തെങ്കിലും അസുഖാണങ്കിലയിന് മരുന്ന് കഴിച്ച് മെല്ലെ ശബ്ദത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്